ഞാനൊരു കർഷകനാണ് എനിക്കുള്ള കൃഷി ആവശ്യങ്ങൾക്കു വരുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിവരങ്ങളും ഒക്കെ ലഭിക്കുന്നത് ഇമെയിൽ ഐ ഡി വഴിയാണ് അതിനു വിളകളെ കുറിച്ചും വിളക്ക് വരുന്നതായ വളങ്ങളെക്കുറിച്ചും അതിനു വരുന്നതായ മറ്റു സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എനിക്ക് അറിഞ്ഞു കൊണ്ടിരിക്കുന്നത് ബാഹ്യമായിട്ടും അതുമായിട്ടു ബദ്ധപ്പെട്ട എല്ലാ കൃഷി ഭവനുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട എല്ലാ കൃഷി ഭവനുമായിട്ടു ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മുൻപുണ്ടായിരുന്ന എൽ വൈ എൻ വൺ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോം എന്ന എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ ചെയിഞ്ച് ചെയ്ത് പുതിയ ഒരു ഇമെയിൽ ഐ ഡി എടുത്തിരിക്കയാണ് ഇപ്പോൾ ഇപ്പോഴെടുത്തിരിക്കുന്നത് കെ എസ് വൈ എസ് വൺ സിക്സ് ത്രീ സെവൻ എയ്റ്റ് എന്ന ഇ ഡോട്ട് ജിമെയിൽ ഡോട്ട് കോം എന്ന ഈ ഐ ഡിയിലേക്ക് ആണ് ഇനിയുള്ള എല്ലാ വിവരങ്ങളും അയക്കേണ്ടത് ഇതിനു മാറ്റാനായിട്ടു കാരണം എനിക്കിനി അറിയേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്താണ് വരേണ്ടത് മാറ്റം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനു മാത്രമേ ഡേറ്റാസ് വരാറുള്ളൂ അതിനു വേണ്ടിയിട്ട് ഒന്നു ചെയ്ഞ്ച് ചെയ്ത് തരാനായിട്ട് അഭ്യർത്ഥിക്കുന്നു